നമ്മുടെ ബാല്യകാലത്തിൽ നമ്മളെ സ്വാധീനിച്ചത് കുറേ കാര്യങ്ങളാണ് എന്നാൽ അതിലൊന്ന് ഏതാണ് എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് പ്രിയതമയായ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴും നമ്മൾക്ക് പറയാൻ കഴിയുന്നത് കുട്ടികാലത്തെ ഓരോ കളികളും അതേപോലെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വന്ന് ടിവിയിൽ കാണുന്ന ചില കാർട്ടൂണുകളും ആണ് ഇത് എല്ലാം തന്നെ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട കാര്യമായിരുന്നു അതേപോലെതന്നെ നമ്മൾ ഈ സ്കൂളുകൾ കഴിഞ്ഞുവന്ന് കൂട്ടുകാരോടൊപ്പം കളിക്കുന്ന കളികളും ഈ സ്കൂളുകൾ ഇല്ലാത്ത സമയത്ത് അവധിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുട്ടികളോട് കളി നമ്മൾ കൂട്ടുകാരോടൊപ്പം കളിക്കുന്ന ഒരോ കളികളും ഒക്കെയാണ്